ഹലോ വാട്ടർ അതോറിറ്റി ഓഫീസല്ലേ ഞാന് എന്റെ വ വെള്ളത്തിന്റെ ചാര്ജടയ്ക്കാന് വേണ്ടി കുറെ കുടിശ്ശികയുണ്ട് അതൊന്നടയ്ക്കണോ അടയ്ക്കാന് വേണ്ടിയാണ് ഞാന് വിളിച്ചത് അതിന് എന്റെ എന്റെ കൈയ്യിൽ അതിന്റെ ബില്ലൊന്നുമില്ല അതെല്ലാം നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ് നിങ്ങള്ക്ക് അതിന്റെ എത്ര ലിറ്ററ് വെള്ളം ഞാൻ ഉപയോഗിച്ചു എന്നതിന്റെയൊക്കെ ഒരു ബില്ലെനിക്ക് തരാന് പറ്റുമോ അതെത്ര രൂപയായി ഇതിനെപ്പറ്റിയൊന്ന് ഡീറ്റേയിലൊന്നറിയാന് വേണ്ടിയാണ് ഞാന് വിളിക്കുന്നത് എനിക്ക് അതിന്റെ ഡീറ്റേയിലൊന്ന് അയച്ച് തരാമോ